നമ്മുടെ ഈ പ്രദേശത്തെ കലകൾ എന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും പണ്ട് പുറംനാടുകളിൽ നിന്നുവന്ന അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ നിന്നുള്ള മുകളിലെ പല സ്റ്റേറ്റുകളിലും കാണപ്പെട്ടിരുന്ന പലതരത്തിലുള്ള കലകളെന്താണ് നമ്മുടെ കേരളത്തിലേക്കെന്താണ് വ്യാപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ്റിങ്ങ് പെയിൻ്റിങ്ങ് തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ എന്താണ് കേരളക്കരയിലെത്തിയിട്ടുണ്ട് അതുപോലെതന്നെ കേരളത്തിലുള്ള ജനങ്ങളെ അത് ആകർഷിച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നീട് ജനങ്ങളെത്തുകയും അതുപോലെത്തന്നെ അത് ഇത് പിന്നീട് ജനങ്ങൾക്കിടയിൽത്തന്നെ ഒരു മത്സരബുദ്ധി നിർമ്മിക്കുകയും അതിൽക്കൂടുതൽ അപ്ഡേഷനുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഏതൊരു നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കടയിൽപ്പോയാൽ ഭക്ഷണം കഴക്കാൻ നല്ല കടയിൽപ്പോയാൽ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതിനുവേണ്ടി പെയിൻ്റിങ്ങ് അതിൻ്റെ ഒരു മുൻ ഒരു അല്ലെങ്കിൽ ഒരു വലിയ ഘടകം തന്നെയാണ് അതിൻ്റെ പെയിൻ്റിങ്ങ് എന്നു പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള പെയിൻ്റിങ്ങ് ആളുകൾക്ക് ഈ പെയിൻ്റിങ്ങിലൂടെ പല കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റും ഇപ്പോൾത്തന്നെ ചില മെസ്സേജുകൾ നമുക്ക് കൈമാറാൻ പറ്റും അതുപോലെത്തന്നെ ഇങ്ങനത്തെ ഈ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും വേറൊരു കലയാണ് ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ട പല കലകളും അതുപോലെത്തന്നെ അങ്ങനെ പല തരത്തിലുള്ള കലകളെന്താണ് ഈ ഈ ഇക്കാലത്ത് കേരളക്കരയിൽത്തന്നെ എത്തിയിട്ടുണ്ട് ഇവയൊക്കെ സംരക്ഷിക്കുന്നത് എന്താ വച്ചാൽ പരസ്പരം ഒരു ക്ലാഷ് ഉണ്ടാക്കാത്തത് മതങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിലും സമൂഹങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിലും വ്യക്തികൾക്കിടയിലാണെങ്കിൽപ്പോലും സമുദായങ്ങൾക്കിടയിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവും ഒരു തരത്തിലുള്ള വിവേചന ബുദ്ധി ബുദ്ധിയേയും ഉപയോഗിക്കാതെയും അതുപോലെത്തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ഈ കലങ്ങളെ ഈ കലകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഞമ്മുടെ ഈ നാട്ടിൻ പുറത്തിലുള്ളത് നേരെമറിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളെടുത്ത് നോക്കിയാൽ പരസ്പരം വിവേചനവും അതുപോലെത്തന്നെ പരസ്പരവും പരസ്പരം അടിയും പിടിയും ഒക്കെക്കൂടുന്ന പലതരത്തിലുള്ള നാടുകളിൽ കാരണമായി മാറുന്നത് ഇത്തരത്തിലുള്ള കലകളും കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മുടെ നാട് എന്നുള്ളത് ഇത്തരത്തിലുള്ള കലകളിലൊക്കെ ഉപയോഗിച്ച് പരസ്പരം ബന്ധം മുറുക്കാനും അതുപോലെത്തന്നെ ബന്ധങ്ങൾ കൂട്ടിക്കെട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ കാര്യങ്ങളെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കലകളെന്താ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് ഇത്തരത്തിലുള്ള കലകൾ നമ്മുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പിനും കൂട്ടുകെട്ടിനും തീർച്ചയായിട്ടും ഈ കലകളെന്താണ് വലിയ പങ്കു വഹിക്കുന്നുണ്ട് വലിയ രീതിയിൽത്തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾക്കെന്താണ് പറയാൻ പറ്റും